ഇപ്പോഴത്തേ എന്ന് പറയുമ്പം ഇങ്ങനെ സംഘമുണ്ട് അങ്ങനെ കുറെ കൂട്ടായ്മകൾ ഉണ്ട് പിന്നെ നമ്മുടെ എന്തെങ്കിലും ഫാമിലി തന്നെ ഇപ്പം എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും കൊച്ചിൻ്റെ ബർത്ത് ഡേ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊക്കെ നമ്മൾ എല്ലാവരെയും വിളിച്ച് ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ വന്ന് ഒത്തുചേർന്ന് നമ്മൾ എല്ലാവരെയും അയിട്ട് വന്ന് കുറെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കടയിൽ പോയി ഇരുന്ന് അവിടെ ഉണ്ടാകും നമ്മുടെ തന്നെ കുറെ ഫ്രണ്ട്സ് അവരുമായിട്ട് ഒത്തുചേർന്നിരുന്ന ഒരു കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു പിന്നെ ഫാമിലിയിൽ ആരുടെയെങ്കിലും കല്യാണമോ കല്യാണത്തിന് ഒക്കെ എന്ന് പറയുമ്പം ആ ഫാമിലിയിൽ എല്ലാവരും തന്നെ വരും പിന്നെ അവരുമായിട്ട് നമ്മൾ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നു പിന്നെ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ആ വഴി പിന്നെ കുറെ കാര്യങ്ങൾ അവരുടെ വീട്ട് കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു അതുപോലെ അങ്ങനെ പലതരത്തിലുണ്ട് പിന്നെ ഫാമിലിയിൽ ഇപ്പം ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി കയറിക്ക്ക്കൂടലുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെയ്യാറുണ്ട് അതിനൊക്കെയാണ് ഇതിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എല്ലാ ഫംഗ്ഷനുകളിലാണെങ്കിലും നമ്മൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് അങ്ങനെ പോയി എല്ലാം ആഘോഷിച്ച് ഭയങ്കരമായിട്ട് അടിപൊളിയാക്കി ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ തിരിച്ചു വരികയുള്ളൂ അവിടെ ചെന്ന് എല്ലാ പരിപാടികൾക്കും നമ്മൾ കൂടി സഹകരിച്ച് അങ്ങനെയൊക്കെ ഇതാക്കി അതുകൊണ്ട് ആ പറയുന്നത്